മേഡം എങ്ങനെയുള്ള വീട് സ്ഥലമാണ് ആഗ്രഹിക്കുന്നത് വീട് വെയ്ക്കാനായിട്ടുള്ളത്

ഉം ആ അപ്പോള് എങ്ങനെയുള്ള യാത്രാ സൗകര്യമുള്ള റോഡിൻ്റെയടുത്താണോ അതോ വല്ല പുഴയുടെ തീരത്താണോ വഴി സൈഡ് ആ വെള്ളം ആവശ്യത്തിന് വേണം വെള്ളം ധാരാളം കിട്ടുന്ന സ്ഥലം ആ ശരി ശരി ആ ആ ഉം ആ യാത്രാസൗകര്യങ്ങളും അതുപോലെതന്നെ പള്ളിയുടെ അടുത്ത് വേണമെന്നുണ്ടോ അതോ സ്കൂളും സൗകര്യങ്ങളും ഉം ആ അപ്പോള് അതുപോലെയുള്ളോരു സ്ഥലം ഞാൻ നോക്കാം അപ്പം എത്ര നില കെട്ടിടമാണ് നിങ്ങള് ഉദ്ദേശിക്കുന്നത്

ഉം

ആ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന സൗകര്യങ്ങളൊക്കെ വേണം അതുപോലെയുള്ളൊരു ഇതും പിന്നെ ആ കുട്ടികൾക്ക് കളിച്ച് നടക്കാനുള്ള ഉള്ള രീതിയിലെല്ലാം കോമ്പൗണ്ടൊക്കെയുള്ളതൊക്കെ നല്ലതല്ലേ ഓ ഉം കൂടുതല് സൗകര്യമായിരിക്കും അപ്പോള് അങ്ങനെ ആ ആ ആ അമ്പത് ലക്ഷം എന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത് അമ്പത് ലക്ഷമൊക്കെയുള്ളൊരു വീട് ആ ആ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തൊരു സ്ഥലം കണ്ടെത്തിത്തരാം മാഡം ഉദ്ദേശിച്ച രീതിയില് സ്വപ്നവും വീടും സാക്ഷാത്കരിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെതന്നെ നമുക്ക് ആരാധനാലയത്തിന്റെ സൗകര്യവും എല്ലാമുള്ളൊരു നല്ലൊരു സ്ഥലം ഞാൻ അത് കണ്ടെത്തിത്തരാം സന്തോഷകരമായിട്ടിരിക്കുകഅതിനുള്ള സമ്പത്ത് ഏത് രീതിയിലാണ് ആ അത് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഞാൻ ഇണക്കിത്തരാം എന്നെ വിശ്വസിക്കാം മാഡത്തിൻ്റെ പേരെങ്ങനെയാണ് അനിത അപ്പം എൻ്റെ പേര് ആലീസ് തോമസെന്നാണ് നമുക്ക് പിന്നെയും ബന്ധപ്പെടാം ഞാനതിനുള്ള പല സ്ഥലങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഞാനത് മേഡത്തിനെ കാണിച്ചുതരാം ഉടനെ തന്നെ നമ്മള് ബന്ധപ്പെടുന്നതായിരിക്കും

വേറെയെന്തെങ്കിലും ഉണ്ടെങ്കില് നമുക്ക് പിന്നീട് ആ ചങ്ങനാശ്ശേരി ടൗൺ ഏരിയായിൽ വേണമെന്നുണ്ടല്ലേ ഉം ആ ഉള്ളിലേക്ക് ആ ആ അത് അങ്ങനെയുള്ളൊരു സാഹചര്യം ഉള്ള സ്ഥലങ്ങള് നോക്കി ഞാനത് അറേഞ്ച് ചെയ്യാം എത്രയും പെട്ടെന്ന് മാഡത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഞാൻ പെട്ടെന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മള് നേരിൽ കാണുന്നതായിരിക്കും എൻ്റെ നമ്പരൊക്കെ മാഡത്തിൻ്റെ കയ്യിലുണ്ടല്ലോ ആ ആ ഞാനും കോൺഡാക്റ്റ് ചെയ്തുകൊള്ളാം നമുക്ക് പെട്ടെന്നൊരു വീട് സ്ഥലവും വീടുമൊക്കെ ശരിയാക്കാനുള്ള എല്ലാ സഹായങ്ങളും എൻ്റെ ഭാഗത്തുനിന്നും തരാൻ ഞാനാഗ്രഹിക്കുന്നു തന്നിരിക്കുമെന്ന് ഉറപ്പ് തരികയാണ് മാഡം ഓക്കേ എന്നാല് ആ ഓക്കേ വീണ്ടും വിളിക്കാം കോൺഡാക്റ്റ് ചെയ്യുന്ന നമ്പരൊക്കെയുണ്ടല്ലോ ഓക്കേ ആ ശരി ശരി ഓക്കേ ആ